ഹലോ ഞാനേ മദ്രാസിൽ നിന്ന് വിളിക്കുന്നതാണേ അപ്പോൾ എനിക്ക് കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങൾ കറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവിടെ റെൻറ്റിന് ബൈക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓ ആണല്ലേ ഓക്കേ എന്നാൽ ഉണ്ട് അല്ലേ നമുക്ക് വലിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത വണ്ടി വേണം നമുക്ക് കേരളം മൊത്തം കറങ്ങണം വണ്ടികളാണ് കൊടുക്കുന്നതല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ അതിന് എത്രയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ത്രിപിൾ നയൻ തൊട്ട് അല്ലേ ആ സ്കൂട്ടി ഇതിനൊക്കെ റേറ്റ് കുറവായിരിക്കും അല്ലേ ആ ഓക്കേ ഓക്കേ അപ്പോൾ ലേശം പൈസ കൂടുതലാണെന്ന് തോന്നുന്നല്ലോ നമുക്ക് ഇവിടെ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നാനൂറ് മുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെ കിട്ടുമായിരുന്നു കൊടുക്കുന്നതല്ലേ ഓക്കേ ഓക്കേ നമുക്ക് ഇപ്പോൾ എല്ലാ സ്ഥലത്തും പോയിക്കൂടേ നമുക്ക് അതുകൊണ്ട് ഇപ്പോൾ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കില്ലേ നിങ്ങളുടെ എത്തിച്ച് തരില്ലേ അവർ കൊണ്ടുത്തരില്ലേ നമ്മൾ നിങ്ങളെ കോ ഓക്കേ ഓക്കേ ആ നമുക്ക് വ് ഇപ്പം രണ്ട് മൂന്ന് പേർ ഉണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു മൂന്ന് ബൈക്ക് ആണ് വേണ്ടത് ആ ബൈക്ക് മതി ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു എന്താണ് പറയുക ഇപ്പോൾ ഒരു നമ്മുടെ ബജാജിൻ്റെ ഏതെങ്കിലും ഒരു വണ്ടികളോ ആ പിന്നെ റോയൽ എൻഫീൽഡിന്റെയോ ബുള്ളറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബൈക്ക് ഉണ്ടാവില്ലേ പറ്റും അല്ലേ ഓക്കേ ഓക്കേ എല്ലാ വണ്ടിയും ഉണ്ട് അല്ലേ ഓക്കേ ഇതിൻ്റെ ഈ ഇപ്പോൾ ഈ ബജാജിൻ്റെ വണ്ടികൾ അതായത് ഡോമിനോർ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടാവില്ലേ അത്യാവശ്യം കുറച്ച് സ്പീഡിലൊക്കെ പോകുന്നത് അതിനോക്കെ എത്രയാണ് റേറ്റ് വരുന്നത് ടു തൗസൻഡ് അല്ലേ ഓക്കേ അത് നമ്മൾ അപ്പോൾ തന്നെ പേ ചെയ്യണോ അഡ്വാൻസ് എന്തെങ്കിലും പേ ചെയ്യണോ പേ ചെയ്താൽ മതി ഓക്കേ അങ്ങനെ ആണെങ്കിൽ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കേ എന്നാൽ